എനിക്ക് അങ്ങനെ ഏറ്റവും ഇഷ്ടം ഉള്ള ഭക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ചായ ഐറ്റംസ് അതായത് കോഫി ടീ അങ്ങനത്തെ സാധനങ്ങൾ തന്നെയാണ് കൂടുതലും ഇഷ്ടം പിന്നെ എണ്ണ പലഹാരങ്ങള് അത് നമുക്ക് ബീച്ച് സൈഡിലുള്ള എന്ത പറയുക നോർമൽ തട്ട്കട പോലത്തെ ഷോപ്പുകളിൽ നിന്ന് കഴിക്കുന്നതാണ് ഇഷ്ടം പിന്നെ വയനാട് പോലുള്ള സ്ഥലത്തേക്കൊക്കെ പോവാണെങ്കൽ അവിടെ നല്ല എന്താ പറയുക കാപ്പിപ്പൊടി ആയിക്കോട്ടെ ചായപ്പൊടി ആയിക്കോട്ടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് തന്നെയാണ് അവിടെ കിട്ടുന്നത് അപ്പം അവിടുത്തെ ചായ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര കഴിച്ചാലും മതിവരാത്ത ഒരു ചായ കാപ്പി അങ്ങനത്തെ സാധനങ്ങൾ ഒക്കെയാണ് വയനാട് മേഖലകളിൽ വരുന്നത് അപ്പ ഞാന് എന്താ പറയാ ഓൾമോസ്റ്റ് ഇപ്പോൾ വയനാട്ടിലേക്കൊക്കെ എപ്പോൾ ട്രിപ്പ് പോയാലും കൂടുതലും കഴിക്കുന്നത് എന്താ പറയുക ചായ കോഫി അങ്ങനത്തെ ഇത് തന്നെയാണ് പിന്നെ അവിടെ മാത്രം കിട്ടുന്ന എന്താ പറയുക കടികള് മാത്രം അങ്ങനെ ഇല്ല ഓൾമോസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടുന്ന കടിയാണെങ്കിലും അവിടെ ചെന്ന് കഴിക്കുമ്പോൾ അയിന് ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് ഓൾമോസ്റ്റ് ഞാൻ വയനാട്ടിൽ കേറുമ്പോഴാണ് കൂടുതലായിട്ട് ഫുഡ് അങ്ങനെ ഓൾമോസ്റ്റ് കഴിക്കുന്നത് വയനാട് തന്നെയാണ് ഫുഡിന് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്